ഞാൻ ഒരു തയ്ക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് അതിനൊരു കടയിട്ട് എന്തങ്കിലുമൊക്കെ പരിപാടി നടത്തണം എന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അത് നല്ല ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ താൽപ്പര്യം തയ്യൽ തയ്യലൊക്കെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം നമുക്ക് ഒരു കടയൊക്കെ ഇട്ട് മുന്നോട്ട് പോകണമെന്നും പിന്നെ നമ്മളെ കാശുണ്ട് ഇതായിട്ട് ഇപ്പം തയ്ക്കണം എന്നൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കട മുന്നോട്ട് പോകാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ നമ്മൾ ഇപ്പം എന്തായാലും തയ്യൽ ഒരു കട ഇട്ടാൽ നമുക്ക് നല്ല ലാഭമുള്ള ബിസിനസ്സാണ് നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് എത്ര സമയില്ലെന്ന് പറഞ്ഞാലും തയ്യൽ കിട്ടാതിരിക്കത്തില്ല പിന്നെ ഓരോ കാലഘട്ടത്തിലും ഫാഷൻ മാറി മാറി വരുന്നത് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക ആണെങ്കിൽ കിട്ടും പിന്നെ നമ്മൾ എത്ര നല്ല വൃത്തിയിൽ ചെയ്തു കൊടുക്കുന്നോ അന്നേരം പിന്നെ ചെയ്തു കൊടുക്കുമ്പം നല്ല അതിന് അനുസരിച്ച് നമുക്ക് നല്ല തയ്യലുകളൊക്കെ കിട്ടാറ് കിട്ടും പിന്നെ നമ്മൾ അത് അതുകൊണ്ടെ് എനിക്ക് അത് ഭയങ്കരം ഒരു ആഗ്രഹമാണ് എനിക്ക് ഒരു കട ഇടണം അതൊട്ട് നല്ല തയ്യലൊക്കെ നല്ല വിപുലീകരിച്ച് കൊണ്ട് പോകണമെന്നൊക്കെ എൻ്റെ ഭയങ്കരം ഒരു ആഗ്രഹമ്നാണ് എന്ന് നടക്കും എന്നൊന്നും അറിഞ്ഞു കൂട അപ്പം നമ്മൾക്ക് വീട്ടിലെ പരിമിതികളൊക്കെയുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരിയൊന്നും തയ്യൽ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് ഇപ്പം കഴിയില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് നമുക്ക് ഒരു കട ഇട്ടിട്ട് പുറത്തുള്ളവർക്കൊക്കെ തയ്ച്ചു കൊടുത്തു നല്ല ഇതൊക്കെ സമ്പാദിക്കാനും പറ്റും നമുക്ക് തയ്യലിൽ നിന്ന് പറഞ്ഞാൽ നല്ല സമ്പാദ്യം ക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് നമുക്ക് നല്ല ഫാഷനിലൊക്കെ തയ്ച്ച്ചു കൊടുത്ത് സമ്പാദിക്കാം എന്നൊള്ള ഒരു ഇത് കൊണ്ടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു ലക്ഷ്യം അത് തന്നെയാണ് എന്തെങ്കിലും നമുക്ക് ഒരു വരുമാന മാർഗ്ഗം ഒരു കടയിട്ട് ഇരുന്നാൽ ഭയങ്കരമായിട്ടൊരു നല്ല ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോകാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചാണെന്ന് പറഞ്ഞാലും നമുക്ക് തയ്ച്ചു തയ്യൽ നല്ല ഒരു മാർഗ്ഗമാണ് അതുകൊണ്ട് ഇതിനെ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള എൻ്റെ എനിക്ക് ലക്ഷ്യങ്ങളാണ് ഏറ്റവും വലിയ അഭിലാഷം ഒരു കടയെടുക്കുക്കുക എന്നുള്ളത് കടയെടുത്ത് രണ്ട് മൂന്ന് പേർക്ക് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായാകും മറ്റേത് രണ്ടും മൂന്നും പേർക്കുള്ള തൊഴിലും കൂടെ കൊടുക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ അത് അതിനുള്ള അത് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി കൊണ്ടേയിരിക്കുകയാണ് അപ്പം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് സഹായിക്കാൻ പറ്റുനു എന്നുള്ള രീതിയിൽ നമ്മൾ സഹായിച്ചു കൊടുക്കുക അപ്പം നമ്മൾക്കും ജീവിത മാർഗ്ഗമാകും അവർക്കും ആകും അത്കൊണ്ടെ് എൻ്റെ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ എനിക്ക് സാധിക്കുമെന്നൊള്ള ഒറപ്പിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി കൊണ്ടിരിക്കുന്നുണ്ട് അത് ദൈവം അനുഗ്രഹിച്ചാൽ അധികം താമസിക്കാതെ തന്നെ ഒരു കടമുറി എടുത്ത് അവിടെ നടത്തണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇരിക്കുവാണ് അപ്പം അതെനിക്ക് തന്നെയല്ല ഒത്തിരിപേർക്ക് അതൊരു ഉപകാരമാകുമല്ലോ അപ്പം എന്നെ പോലെ ഇങ്ങനെ ലക്ഷ്യത്തിലെത്താൻ ചിന്തിക്കുന്ന പലരും ഉണ്ടാകുവായിരിക്കും അപ്പത് കൊണ്ട് അവർക്കൊരു താങ്ങ് കൈത്താങ്ങാകും നമ്മൾക്കും ഒരു ഇതാകും അപ്പം അതുകൊണ്ട് തയ്യലിൻ്റെ ഇതിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആരാഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത് നല്ല ഒരു കടയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി ഇത് കിട്ടും തയ്ക്കാനൊക്കെ കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഇത്ര നല്ല ആക്ടീവായിട്ട് നിൽക്കുന്ന അത് സഹിച്ചു മുന്നോട്ട് പോയി നിൽക്കാനുള്ള ആ ഒരു ഇതുണ്ട് അപ്പം അത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ നിൽക്കുക എന്നുള്ളയാളണ് തയ്ച്ചു തയ്യൽ കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് മുന്നോട്ട് പോയി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ലക്ഷ്യ ബോധത്തോടെ തന്നെ ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നതും എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കണം എന്നുള്ള ഇതുണ്ട് അതുകൊണ്ട് ഞാൻ കാരണം വേറെ ഒരാക്ക് കിട്ടുവാണങ്കിൽ അത്രയും കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്